ആ എന്താണ് ഏട്ടായി

അത്

ആ ചേട്ടാ നേരത്തെ എങ്ങാനും വന്നിട്ടുണ്ടോ ചേട്ടാ ഇങ്ങനെ അതോ ആദ്യമായിട്ടാണോ വരുന്നത് ആണോ ആയുർവേദത്തിൽ അവർ ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മൾ പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നൊക്കെയാണ് ആദ്യം നോക്കുന്നത് അപ്പോഴത്തേക്ക് പിന്നെ അല്ലെങ്കിൽ നമ്മൾ അത് ഒരു കണ്ണട വച്ചിട്ട് അത് വായിക്കാൻ പറയും കുറച്ചു അക്ഷരങ്ങൾ തന്നിട്ട്

അപ്പം നമ്മൾ ദൂരെ അടുത്ത് വയ്ക്കുമ്പം നമ്മൾ ചെറിയ മങ്ങൽ ഉണ്ടെങ്കിൽ പറയും അത് ശരിയാവുന്നില്ലെന്ന് പറയും അപ്പം അവർ വേറെ ഒരു വേറെ ഗ്ലാസ് കയറ്റി ഇടും അപ്പം അവർ ഇച്ചിരി കൂടെ അകലം പിടിക്കും അപ്പം അത് വായിക്കുക അന്നേരവും മങ്ങലാണെങ്കിൽ ഇച്ചിരി കൂടെയും ദൂരോട്ടുള്ള ഇത് കാണിക്കും അപ്പം നമ്മൾ അത് ക്ലിയർ ആണെങ്കിൽ പറയും അത് ശരി ഒക്കേ എന്ന് പറയും അത് അതിന് അനുസരിച്ചുള്ളത് തരും പിന്നെ കണ്ണിന് ഒഴിക്കാനൊക്കെയുള്ള ഉള്ള ചെറിയ ഒരു മരുന്ന് അത് തുള്ളി മരുന്നുണ്ട് അത് ഒഴിക്കാൻ പറയും പിന്നെ അവർ പറയും ഒത്തിരി ആയാസപ്പെട്ട ജോലിയൊന്നും കണ്ണ് കൊണ്ട് അങ്ങനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് കണ്ണ് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയും പിന്നെ കണ്ണ് ഇല്ല അത് അവർ പറയുന്നത് അതിൻ്റെ ഒരു എണ്ണയൊക്കെ ഉണ്ട് അത് പിന്നെ നല്ലപോലെ തല തണുക്കെ എണ്ണ തേച്ചു കുളിക്കാൻ പറയുന്നുണ്ട്

നല്ല രക്തയോട്ടവുമൊക്കെ കിട്ടും അപ്പം അത് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത് അല്ലാതെ പ്രത്യേകിച്ചു അതിലുളളതൊന്നും പിന്ന തിമിരവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനെ കുറിച്ചൊന്നും അത്ര എനിക്ക് പറയാൻ ഇതില്ല പിന്നെ ഇങ്ങനെ അവർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആയുർവേദത്തിൽ പോവുമ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങന്നെ ഈ ഞരമ്പിൻ്റെ ഒക്കെ മിസ്റ്റേക്കുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ഈ എണ്ണ തേച്ചു കുളിക്കുമ്പോൾ മാറും പിന്നെ ഈ തുള്ളി മരുന്ന് കൂടെ ഒഴിക്കുമ്പോൾ അത് ക്ലിയറാവും എന്നാണ് പറയുന്നത് പിന്നെ വീണ്ടും അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ തുടർന്നുള്ള ചികിത്സ അവർ പറയുന്നത് നമ്മൾ ചെയ്താലെ പറ്റത്തുള്ളൂ എനിക്ക് അതിനെ കുറിച്ചു വലിയ ഗ്രാഹ്യം ഇല്ല ഇത്രെയേ ഞാൻ കേട്ടിട്ടുള്ളൂ ഉള്ള കാര്യം പറയാലോ ഓ ആ അല്ല ഇല്ല ദോഷമൊന്നും ഇല്ല ഉം മൂടൽ ആ ആ അ ആ ഉണ്ട് ഉണ്ട് ആ ആ ഓക്കെ